പ്രാർത്ഥന ഒരു വ്യക്തിയുടെ സ്വകാര്യമായ അനുഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ ഒരു ഫ്രണ്ട്സിനോട് കോൺവെർഷേഷൻ ചെയ്യുന്ന കണക്ക്തന്നെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ആരാണോ ആ ഇതിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി മനസ്സിനൊരു റിലീഫ് കിട്ടും എന്ന് അമ്പേ കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ പ്രാർത്ഥനകൾ പലരീതിയിൽ പല മതവിശ്വാസികളും പ്രാർത്ഥിക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്ക് ആരാധനക്രമത്തിൽ പ്രാർത്ഥനകളൊക്കെ ശരിക്ക് ഫീല് ചെയ്യാറുണ്ട് അതുപോലെത്തന്നെ നമ്മളുടെ വിശ്വാസങ്ങളില്ലാത്ത ചില പ്രാർത്ഥനകളും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദു മതവിശ്വാസികൾക്ക് ഇപ്പം കൃഷ്ണനോടുള്ള ആരാധന അല്ല ശിവനോടുള്ള ആരാധന അങ്ങനെയൊക്കെയുള്ളത് കാണുമ്പം നമുക്ക് ഒത്തിരി പിന്നെ ഒരു യഥാർത്ത ഒരു യഥാർത്ത ഒരു സ്ട്രക്ച്ചർ ഒരു നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റിലേക്കുള്ള ഒരു വ്യക്തിയെ നമുക്ക് ആ ദൈവങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥിച്ചില്ലെങ്കിൽപോലും ആ വ്യക്തിയോട് നമുക്കൊരു വീരാരാധനയൊക്കെ തോന്നാറുള്ള ആ പ്രാർത്ഥനയുടെ ഒരു വേറൊരു മുഖമായിട്ട് നമുക്ക് പലപ്പോഴും ഫീല് ചെയ്യാറുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഉള്ള് നമുക്ക് തുറന്ന് പറയണമെങ്കിൽ അത് പ്രത്യേകിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനപോലെ ഇങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയല്ല നമുക്ക് ചുമ്മാ പേഴ്സണലി നമ്മൾ ഒരാളോട് നോട്ടിയായിട്ട് സംസാരിക്കാറുണ്ട് സീരിയസ്സ് ആയിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് പലപ്പഴും ജീസ്സസ്സിനെ തോന്നാറുള്ളത് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ ചെലപ്പം സീരിയസ്സ് ആയിട്ട് പറയും ചിലപ്പോൾ സില്ലിയായിട്ട് പറയാറുണ്ട് അങ്ങനെ പല വേവിലൂടെയും ജീസസ്സിനോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും എനിക്കതിന് ഉത്തരവും കിട്ടാറുണ്ട് പിന്നെ അതുപോലെത്തെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മക്കളെയും പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഇത്തിരി പുസ്തകത്തെ നോക്കി അച്ചടിച്ച പുസ്തകം പുസ്തകത്തെ നോക്കി പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ സീരിയസ്നെസ്സ് തോന്നിയിട്ടില്ല അത്ര അത് ആത്മാർത്ഥമാണെന്ന് എനിക്ക് ഫീല് ചെയ്തിട്ടില്ല ചില പുസ്തകങ്ങളിലൊക്കെ പ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥംപോലും മനസ്സിലാകത്തില്ല ഇത് എന്ന് ഒക്കെയാ ഈ പറയുന്നത് എന്ന് പക്ഷെ നമ്മൾ സ്വകാര്യമായിട്ട് നമ്മൾ ഈശോയോട് സംസാരിക്കുമ്പോൾ നമ്മുക്കതിൻ്റെ അർത്ഥം നമ്മുക്കുമറിയാം നമ്മൾ പറയുന്നത് ഇന്നതാണെന്ന് അങ്ങനെ തോന്നാറുണ്ട് പിന്നെന്താ പിന്നേ ചില പ്രാർത്ഥനകൾ ഒക്കെ ഞങ്ങൾ പിന്നെ വീട്ടിൽ എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നൂറ് ശതമാനവും അച്ഛന്മാരൊക്കെ പറയുന്നതൊക്കെ പൂർണ്ണമായിട്ടൊന്നും ഭക്തിയിൽ ലയിച്ചൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ മനുഷ്യരല്ലേ ഇപ്പം സാധാരണ പ്രാർത്ഥിക്കുന്ന കണക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥനകൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിക്ക് ആണത് ഫീല് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക മാതാവാ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് പറയുന്ന കണക്കാ ഫീല് ചെയ്യുന്നത് പലപ്പഴും എൻ്റെ അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ എനിക്ക് അവസാനം സാധിച്ചു തന്നേക്കണം എനിക്ക് എന്താ അതു മേടിച്ച് തരണം എന്നൊക്കെ പറയുന്ന കണക്ക് ഞാൻ പള്ളിക്ക് പാരായ് പള്ളി ചെന്ന് മാതാവിനോട് പറയും മാതാവെ എൻ്റെ കാര്യം ഒക്കെ നിനക്ക് അറിയത്തില്ലേ നീ അതൊന്ന് സാധിച്ചുതന്നേക്കണം എന്ന് പറയും അങ്ങനൊയൊക്കെയേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളു അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഒഫിഷ്യൽ രീതിയിലുള്ള പ്രാർത്ഥനകളോട് എനിക്ക് പ്രത്യേകിച്ചുള്ള അട്ട്രാക്ഷൻ ഒന്നും തോന്നാറുമില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറും ഇല്ല പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിതമിക്കാകാവുന്ന ഒരു പ്രാർത്ഥനാ സിസ്റ്റത്തെ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊരു അതൊക്കെ ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്